ഹലോ ഹലോ ഇതൊരു ഡ്രൈവിങ് സ്കൂളല്ലേ ഇത് ട്രീ ഡ്രൈവിങ് സ്കൂളാണോ നമ്മുടെ എനിക്ക് ലൈസൻസ്സെടുക്കാൻ താൽപ്പര്യമുണ്ട് അപ്പം അതിന്റെ ഡീറ്റേയ്ൽസും കാര്യങ്ങളും പിന്നെ വണ്ടിയുടെ കാര്യങ്ങളും ഡീറ്റേയ്സൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഫ്രീയായിരുന്നോ രണ്ടും ഉണ്ട് രണ്ടും ഒരുമിച്ചുണ്ട് ഹ്

ഓക്കെ ഓക്കെ ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ

ഓക്കേണ് ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഈ ലേണേഴ്സിൻറ്റെ കാര്യമൊക്കെയോ ആ ഫില്ലയ്ണോല്ലേ ഓക്കേ

മറ്റേ അവിടെ അവിടെയുണ്ടല്ലോ ശരി ശരി ശരി ഓക്കേ എനിക്ക് ഫ്രീയാവുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമോ അപ്പം അതിന്റെ ഒന്ന് സ്ഥലമൊക്കെയോ ഒന്ന് വാട്സപ്പ് ചെയ്തേക്കണം സ്ഥലമൊക്കെ

ആ ഓക്കെ ഓക്കെ ഓക്കേ ഓക്കേ ആ ആ ഓക്കെ ഓക്കെ ആ ശരി ശരി അത് എനിക്ക് അങ്ങനെ വലിയതായിട്ട് അറിയത്തില്ല പക്ഷേ ഒരു ജെസ്റ്റൊരു ധാരണയെയുള്ളു ഓടിച്ചിട്ടില്ല ഇതുവരെ വണ്ടിയൊന്നും അങ്ങനെ ഒന്ന് പഠിക്കാനാണ് തുടക്കം തൊട്ടൊന്ന് പഠിപ്പിച്ച് തരണം അങ്ങനെ ഓക്കേ ബൈക്ക് ആ കുഴപ്പമില്ല ഓടിക്കാൻ അറിയാവുന്നതാണ്

ആ എന്നാൽ ശരി ശരി ശരി ശരി ഓ ഓക്കെ ഓക്കെ ആ ഹാ ആ ഹാ ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ഞാൻ ഞാൻ എന്തേലുമുണ്ടേൽ വിളിച്ചേക്കാം ഓക്കെ അപ്പം ശരി